ഹലോ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഗൈഡ് അല്ലായിരുന്നോ അതെ നമുക്ക് വയനാട്ടിൽ ഫുള്ള് ഒന്ന് കവറ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ അതെ അതെ നമുക്ക് അത്യാവശ്യം എല്ലാം നല്ല നാച്ചുറൽ പ്ലേസ് ഒക്കെ കണ്ട് എല്ലാം സെറ്റ് ആവൻ വേണ്ടിയിട്ടായിരുന്നു വൈബാക്കാൻ വേണ്ടിയിട്ട് ആ അതെ അതെ വൺഡേ ട്രിപ്പ് നമുക്ക് നാച്ചുറലായിട്ടുള്ള മല കുന്ന് മലകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ആ ആ അതെയതെ കുറച്ച് അഡ്വഞ്ചറായിട്ട് ഉള്ള പരിപാടികൾ നമുക്ക് അതിൻ്റെ റേയ്റ്റും കാര്യങ്ങളൊക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ നമുക്ക് അതിൻറ്റെ റേയ്റ്റ് എത്രയായിരുന്നു ഫുള്ളായിട്ട് വരുന്നത് നമുക്കൊരു വൺഡേ ട്രിപ്പ് ആ ഓക്കെ ഓക്കേ ടു ഹൺഡ്രഡാ ആ ഓക്കെ അത് എത്രയാ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അതെ അതെ അങ്ങനെത്തെയൊരു ഇതാണ് നമുക്ക് വേണ്ടത് ആ അങ്ങനെത്തെയൊരു ഇതു തന്നെയാണ് നമുക്കും വേണ്ടത് ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഒക്കെ നമുക്കപ്പം ഈ ഭാഗങ്ങളെല്ലാം വൺഡേ കൊണ്ട് കവറ് ചെയ്യണമെങ്കിൽ നമ്മൾ മോർണിംഗ് ഒരു എത്ര മണിയാകുമ്പോൾ വരേണ്ടി വരും മുത്തങ്ങ അല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ നമ്മളെന്തായാലും എന്നാൽ മോണിംഗ് എത്താം നമുക്കാ പക്കേജ് തന്നെ എടുക്കുകയും ചെയ്യാം ഒരു താല്പര്യമുണ്ട് ആ ഓക്കെ ഓക്കെ ആ ആ കൺഫെം ആക്കാം കൺഫെം ആക്കാം ഓക്കെ ഡാങ്ക് യൂ അപ്പോൾ ഞാനൊന്നുകൂടി വിളിക്കാം നമ്മളെല്ലാവരുംകൂടെ പറഞ്ഞിട്ട് ആ ഈ നമ്പറിലേക്ക് വിളിക്കാം ആ ഓക്കെ താങ്ക് യൂ